വി കെ പി ട്രേഡേഴ്സ് അല്ലേ

ആ വി കെ പി ട്രേഡേഴ്സ് അല്ലേ ആ ഞാൻ മട്ടാഞ്ചേരിയിൽ നിന്ന് വിളിക്കുകയാണ് എനിക്ക് കുറച്ച് പച്ചക്കറി ആവശ്യമായിട്ട് വരുന്നുണ്ടായിരുന്നു ഒരു കല്യാണാവശ്യത്തിനായിട്ടാണ് അപ്പം അവിടുന്ന് ഇടയ്ക്ക് ഞാൻ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നെപ്പോഴും അവിടുന്നാണ് പച്ചക്കറികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് വരുന്ന വെള്ളിയാഴ്ച്ചയൊരു പരിപാടിയുണ്ട് ഒരായിരം പേരുടെ പരിപാടിയാണ് സദ്യയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേരള സദ്യയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പച്ചക്കറികളെല്ലാം തന്നെ വേണ്ടി വരുമല്ലോ അപ്പം നിങ്ങൾക്കവിടെ എല്ലാം കിട്ടുമോ എല്ലാ പച്ചക്കറികളും അവിടെ കിട്ടും അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നമുക്ക് പാചകക്കാരൻ വന്നാണ് ചെയ്ത് തരുന്നത് അപ്പോ സാധനങ്ങൾ പിന്നെ എനിക്ക് എല്ലാ പച്ചക്കറികളും തന്നെ വേണ്ടി വരും ലിസ്റ്റ് അദ്ദേഹം ഇവടെ തന്നിട്ടുണ്ട് ഞാൻ അത് അവിടെ എത്തിക്കാം അപ്പം പച്ചക്കറിക്ക് എല്ലാം കൂടെ അപ്പം വലിയ ഒരു എമൗണ്ട് വരുവോ നമുക്ക് എല്ലാം കൂടെ എടുക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ പറയാൻ പറ്റുള്ളൂ നമുക്കൊരു ആയിരം പേരുടെയാണ് സദ്യ ആ അപ്പോൾ

ആ ഡിസ്കൗണ്ട് ഒക്കെയുണ്ട് അല്ലേ നമുക്കതിന് ആ നമ്മളിപ്പോൾ കുറേ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങളൊരു എന്തോ ആ ഡെലിവെറി ചെയ്യേണ്ടി വരും കാരണം നമുക്കിവിടെ അങ്ങനെ വണ്ടികളൊന്നും അധികം ഇല്ല അപ്പം നിങ്ങൾ തന്നെ ഡെലിവറി ഇവിടെ ചാർജ് വരും അല്ലേ ഓക്കെ ആ ആ ലിസ്റ്റ് ഞാൻ തരാം അപ്പം നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് അതിനകത്ത് ചെയ്യുക കാരണം ഇപ്പോൾ ഒരു അഞ്ച് കല്യാണത്തിനുള്ള സാധനങ്ങൾ ഞങ്ങൾ അവിടുന്ന് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുതന്നെ ആ അപ്പം മാക്സിമം അതിൻ്റെയൊരു ഡിസ്കൗണ്ട് എന്ന് ചെയ്ത് തരിക തന്നാൽ വലിയ ഉപകാരം ശരി ശരി ഓക്കെ എത്താം ഞാൻ അവിടെ വരാം ശ രിയപ്പം ശരി താങ്ക് യൂ